എൻ്റെ രണ്ടാമത്തെ പ്രൊഡക്റ്റ് ബെഡ്ഷീറ്റാണ് ഞാനത് ഫ്ളിപ്കാട്ടിന്നാണ് മേടിച്ചത് അതായത് ഇപ്പോൾ ഡബിൾ കോട്ടിനൊക്കെ നമുക്ക് പുറതിന്നൊക്കെ മേടിക്കുമ്പം അറന്നൂറ് എഴുന്നൂറ് രൂപയൊക്കെയാണ് അത് ഡബിൾ കോട്ട് ബെഡ് ഷീറ്റ് വിത്ത് പില്ലോ ആയിട്ട് പില്ലോ ഇല്ലെങ്കിൽ വില കുറവാണ് പക്ഷേ ഇപ്പോൾ ഓൺലൈൻ നോക്കിയപ്പോൾ പില്ലോയും കൂടെ ആയിട്ട് അത്യാവശ്യം നല്ല റേറ്റ് അതായത് ഒരു മൂന്നൂറുവക്ക് കിട്ടിയപ്പോൾ ഞാൻ ഓർഡർ ചെയ്തതാണ് എന്നുവെച്ചാൽ അത്യാവശ്യം നല്ലതാണ് നല്ല ഇതാണ് അതായത് പെട്ടന്ന് ഉണങ്ങി കിട്ടും പോളിസ്റ്റെർ പോലെത്തെയാണ് പിന്നെ ഇതിൻ്റെ പോളിസ്റ്ററ് പോലത്തെ ആയതുകൊണ്ട് നമുക്ക് പെട്ടന്ന് ഇപ്പോൾ അലക്കീട്ട് ജസ്റ്റൊന്ന് റ് പിന്നെ വാഷിംഗ് മെഷീൻൽ ഇട്ട് കറക്കീട്ടുണ്ടെങ്കിൽ അലക്കീട്ടുണ്ടെങ്കിൽ പെട്ടന്ന് ഉണങ്ങുകയും ചെയ്യും അങ്ങനെയൊക്കെ ഉപകാരമാണ് പിന്നെ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് പറഞ്ഞാൽ ഈ കാലിൽ പൊട്ടൊക്കെയുള്ള ദിവസാവുമ്പോൾ അതായത് കാലിലിങ്ങനെ പിടിച്ച് പിടിച്ച് നിൽക്കുന്നത്പോലെ തോന്നും അതായത് നമ്മളിങ്ങനെ കാല് തട്ടുമ്പോൾ ഇങ്ങനെ ഉരഞ്ഞുരഞ്ഞ് ഇരിക്കും പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൈസ് അതായത് പിന്നെ ഒരു ഉണ്ട ഉണ്ട പോലത്തൊരു സാധനങ്ങൾ ഇങ്ങനെ പൊന്തി വരും അതൊക്കെയാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജ്